ആ ആ ആ ഇവിടെ എല്ലാ സാധനം സാധങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് മൂന്ന് നാല് കൂട്ടം വാങ്ങിക്കാൻ വേണമായിരുന്നു പപ്പായ ചക്ക ബനാന ആ അങ്ങനെ ഉള്ള കുറെ ഐറ്റം വേണമായിരുന്നു എങ്ങനെയാണ് വില

മാങ്ങ മാങ്ങ മാങ്ങാപ്പഴം പഴം

ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ ആ ഇച്ചിരി കൂടുതൽ വേണം അത് ഇന്നലത്തെ വില ഈ രീതിയിൽ ആയിരുന്നു ഇന്നലത്തെ നിലവാരം എന്നാന്നോ ആ ആ ആ അപ്പോൾ ഇത്ര ഒക്കെ വില പോര ആ ആ ആ അപ്പോൾ നാളത്തേന് കുറയാൻ വല്ല സാധ്യത ഉണ്ടോ വല്ലോം നിങ്ങൾക്ക് അറിവ് കിട്ടീട്ട് ഉണ്ടോ നിലവാരം കൂടുന്നത് ആ അപ്പം അപ്പോൾ ഏകദേശം എല്ലാം കൂടെ എത്ര രൂപ വരുമായിരിക്കും ഒരു ഓ ഈ രണ്ട് കിലോ ഒക്കെ എടുക്കുമ്പോൾ അത്രേ ഉള്ളോ ഓ ആ അത് ശരി ആ ആ അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ആണോ ആ ക്വാളിറ്റിയോ ആ ക്വാളിറ്റിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ആ ആ ആ എന്നാൽ ഇപ്പോൾ ആ ഇന്ന് ഇപ്പം ഇന്ന് ഇപ്പോൾ സൺഡേ അല്ലേ നാളെ പുതിയ സാധനം വരും അല്ലേ ആ സാധനം ആ നല്ല സാധനം ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടതെ ആ ആ അപ്പോൾ അത് അങ്ങനെ ആണ് അല്ലേ